അത് നമ്മളൊരു വസ്ത്രമെടുത്തു അപ്പം അതിൽ നമ്മൾ ശരിയായിട്ടുള്ള നിറമല്ല നമുക്ക് ആ നിറം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആമസോൺ എടുക്കുക നമ്മൾ ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം ഏത് അപ്ലിക്കേഷനിൽ ആണോ നമ്മൾ ഓർഡർ ചെയ്തത് ആ അപ്ലിക്കേഷൻ എടുക്കുക എന്നിട്ട് നേരെ എന്താ ഓർഡറിലോട്ട് പോവുക ഓർഡറിൽ ചെന്നിട്ട് നമ്മൾ നേരെ അത് ക്യാൻസല് ചെയ്ത് കൊടുക്കുക അതാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നടപടി അത് നേരെ ക്യാൻസല് ചെയ്തു കൊടുക്കുക